പിക്കിനിക് എന്ന് പറയുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പികിനിക്കിന് പോകാൻ പ്രത്യേകമായി ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയാൻ നല്ല മലയോരങ്ങൾ താഴ്വാരങ്ങൾ വിശാലമായ കടൽത്തീരം അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പികിനിക്കിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് അവിടെ ഫ്രണ്ട്സുമൊത്തു പോകുമ്പോൾ അവരുമായി ഒരുപാടു നേരം സംസാരിച്ചിരിക്കുകയും ഓരോ വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക വളരെ രസകരമായൊരു കാര്യമാണ് കൂട്ടുകാരുമൊത്തു തമാശകൾ പറഞ്ഞിരിക്കാനും അവിടെ ചെറുകളികൾ ചെയ്യാനും നല്ല രസമുള്ള കാര്യം തന്നെയാണ് പിക്കിനിക്കിനായി പോവാൻ തീരുമാനിക്കുമ്പോൾ തൊട്ട് പാക്കിങ്ങായാലും അവിടെ പോയി അവിടെ സ്പെൻഡ് ചെയ്യുന്ന നിമിഷങ്ങളായാലും എല്ലാം വളരെ രസകരവും ആനന്ദ പൂർണവുമായ സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പിക്കിനിക്ക് പ്രായ ഭേദമന്യേ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അത്